പാലക്കാട് ജില്ലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ചില പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ ഏതൊക്കെയെന്നു വച്ച് കഴിഞ്ഞാൽ മഹിളാ മിത്ര അതിൽ രണ്ട് കോടി ബാക്ക്വേർഡ് റീജ്യൻ ഗ്രാൻഡ് ഫണ്ടിൽ ഉണ്ടായിരുന്നത് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നു കുറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾ നയങ്ങളും ജില്ലയുടെ മൊത്തത്തിലുള്ള വികസനത്തെയും വളർച്ചയേയും നല്ലോണം ബാധിച്ചിട്ടുണ്ട് കാരണം എന്നു വച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള വ്യക്തികൾക്കും ഇതിൽ നിന്നും നിറയെ കാര്യങ്ങൾ നിറയെ അറിവുകളും അതിന് ഉപയോഗങ്ങളും കുറെ ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ എങ്ങനെയെന്ന് വച്ച് കഴിഞ്ഞാൽ വീട്ടമ്മ പോലെയുള്ള സ്ത്രീകൾക്കും ജോലിയില്ലാത്ത സ്ത്രീകൾക്കും കൂടുതൽ അവസരങ്ങളും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയും ലഭിക്കുന്നതിനായി കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വരുന്നുണ്ട് അവ ജില്ലയുടെ മൊത്തത്തിലുള്ള മുഖച്ഛായ മാറ്റുന്നതിനായി സഹായിക്കുന്നുണ്ട് കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളാണെന്നു വച്ചാൽ നമ്മുടെ പാലക്കാടിന്റെ വൃത്തിക്കും അതുപോലെതന്നെ സഹായകരമായ മറ്റുചില പദ്ധതികൾക്കും ഈ കുടുംബശ്രീ പദ്ധതി നമുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കുടുംബശ്രീ യൂണിറ്റെന്നു പറയുന്നത് തന്നെ പാലക്കാട് അല്ല കേരളത്തിലല്ല നമ്മുടെ ലോകത്തിൽതന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ് അതായത് കുടുംബശ്രീ യൂണിറ്റിൽ നമുക്ക് വിവിധതര ആ വസ്തുക്കൾ ഉണ്ടാക്കുകയും അല്ലാതെ പുറം പണിക്കു പോവുകയും അതുപോലെതന്നെ അവർ പാചകം ചെയ്തിട്ട് കുടുംബശ്രീ കാറ്ററിംഗ് വരെ നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട് അങ്ങനത്തെ ഒരു കൂട്ടായ്മ വളർത്താൻ വേണ്ടി പാലക്കാടിൽ കുറേ നയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിലുള്ള വികസനത്തിലും വളർച്ചയ്ക്കും നല്ലോണം ബാധിച്ചിട്ടുണ്ട് ജില്ലയിൽ സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ മികച്ച ഒരു സേവനം ആണ് അവർ പുറത്തുവിടുന്നത് പാലക്കാടുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും നല്ല വൃത്തിയോടെ പണിയെടുക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടിയും നല്ല വികസനത്തിനും വേണ്ടി നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട്